എനിക്ക് വസ്ത്രധാരണ രീതിയില് എനിക്കിഷ്ടപ്പെട്ട ഒരു പുതിയ സിനിമ എന്ന് പറയുന്നത് റോക്കി ഓര് റാണി അവരുടെ പ്രേം കഹാനി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആലിയാ ഭട്ടിന്റെയും അതുപോലെ റണ് റണ്വീര് സിംഗിന്റെയും ഒരു സിനിമയാണ് അതില് ആലിയാ ഭട്ട് ആ ഫിലിം തുടങ്ങിയത് മുതല് അവസാനിക്കുന്നത് വരെ സാരി മാത്രമേ വസ്ത്രമായിട്ട് വസ്ത്രധാരണ രീതിയില് സാരി മാത്രമേ കൊണ്ടു വന്നിട്ടുള്ളൂ അത് എന്ന് പറയുന്നത് പല ഷെയ്ഡുകളില് ഉള്ള ഒരു നല്ല ഷിഫോണ് സാരികളാണ് അത് കാണുമ്പം തന്നെ നമുക്കും അതുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിപ്പോകും അപ്പോൾ ആ ഒരു സിനിമ കണ്ടതോട് കൂടി ഇപ്പോഴത്തെ ട്രെന്ഡും ഇപ്പം നമ്മുടെ നമുക്കിടയില് സാധാ ജനങ്ങള്ക്കിടയില് പോലുമുണ്ടായിരുന്ന ഒരു ട്രെന്ഡ് സാരി തന്നെയായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള സാരി എടുത്തിട്ട് ആ രീതിയില് സൃഷ്ടിക്കാനല്ല ആ രീതിയില് എനിക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നില്ലല്ലോ അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് അത് വാങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫാഷന് ഡ്രെസ്സുകള് ഇപ്പം കോഡ് ഡ്രെസ്സ് ഉണ്ടാകും ഇപ്പോൾ ടോപ്പും പാന്റും ഒരു പോലെയുള്ള ഒരേ ഒരേ ഷെയ്ഡില് ഒരേപോലെ പ്രിന്റ് ഒക്കെ വരുന്ന ഒരേ പോലത്തെ ടോപ്പും ഫുള് കൈ ടോപ്പും പാന്റും പാന്സ് എന്ന് പറയുമ്പോൾ പലോസോ പാന്സും അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായി വ വരികയും ചെയ്തിട്ടുണ്ട് ഈ സാരിയിലാണ് ഇപ്പോഴത്തെ ട്രെന്ഡ് മുഴുവനും അതുകൊണ്ട് തന്നെ സാരി വാങ്ങിയിട്ട് ഞാന് ഒരുപാട് അതില് തന്നെ ഒരുപാട് മാറ്റങ്ങള് വരു വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്